നമ്മളുടെ പ്രദേശത്ത് പരമ്പരാഗതമായിട്ട് കളിച്ചുവരുന്ന കുറെ കളികൾ ഒക്കെ ഉണ്ട് അതിൽ ഞാൻ ചെറുപ്പത്തിൽ കളിച്ച കളികളിൽ ഒന്നാണ് ഒളിച്ചുകളിയെന്ന് പറയുന്നത് ഒളിച്ചുകളി എങ്ങനെയാ കളിക്കുന്നതെന്ന് വെച്ചാൽ അത് എല്ലാവരും പരമ്പരാഗതമായി കളിച്ചു വരുന്ന കളി തന്നെയാണ് ഒളിച്ചുകളി എങ്ങനെയാ കളിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടി എണ്ണുകയും ബാക്കിയെല്ലാവരും പോയി ഒളിച്ചു മീൻസ് ഒളിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ കുട്ടി പോയി ബാക്കി ബാക്കി ആ ഒളിച്ചു നിൽക്കുന്ന അംഗങ്ങളെയൊക്കെ കണ്ടുപിടിക്കണം അതായത് ബാക്കി കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് വന്ന് ആ കുട്ടി എവിടെ നിന്നാണോ എണ്ണുന്നുണ്ടായത് അവിടെ വന്ന് സാറ്റെന്നു പറഞ്ഞ് അവരെ കണ്ടുപിടിച്ചു എന്ന രീതിയിൽ ഒരു അടയാളമായി ഇന്ന ഇന്നയാളെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് സാറ്റ് പറയുകയാണ് ചെയ്യേണ്ടത് ഇതാണ് ഒളിച്ചു കളി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരെയും കണ്ടുപിടിച്ചാൽ കണ്ടുപിടിച്ചതിനുശേഷം ആരെയാണോ ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് ആ കുട്ടി ആരെയാണോ കണ്ടുപിടിച്ചത് ആ കുട്ടിയായിരിക്കും പിന്നിട് അങ്ങോട്ട് എണ്ണാൻ പോകുന്നത് അങ്ങനെ കളി തുടരുകയാണ് ചെയ്തത് പിന്നെ വേറൊരു കളി എന്നു പറയുന്നത് ഗോരീന്നാ പറയുക ഗോരീന്ന് പറഞ്ഞിട്ട് വേറൊരു കളി കൂടിയുണ്ട് ഗോരീന്നു വെച്ചാലും ചിരട്ടകളോ അല്ലെങ്കിൽ ചെറിയ ഇഷ്ട്ടിക കഷ്ണങ്ങളോ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് വെച്ചതിനുശേഷം ഒരു കുട്ടി രണ്ട് ടീം ആയിട്ട് അതിനെ വേർതിരിക്കും കുറച്ച് കു ഇതിന് കുറേ അംഗങ്ങൾ ആവശ്യമുണ്ട് ഈ കളി കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് അംഗങ്ങളെയൊക്കെ രണ്ട് തിർ ടീം ആയിട്ട് വേർതിരിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു ടീമിലെ ഒരു കുട്ടി ഒരു ബോളുകൊണ്ട് ആ അടുക്കി വെച്ച കല്ലുകൾക്ക് കല്ലുകളിലേക്കോ അല്ലെങ്കിൽ പിന്നെ ചിരട്ടകളിലേക്കോ ബോള് കൊണ്ട് എറിയുക ബോളുകൊണ്ട് എറിഞ്ഞിട്ട് കൃത്യമായിട്ട് ആ അടുക്കിവെച്ച ചിരട്ടകൾക്ക് ചിരട്ടകളിലേക്ക് ആ ബോളുകൊണ്ട് കൊണ്ട് ചിരട്ടകൾ ഒക്കെ താഴെ വീണാൽ ബാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്നുള്ള എതിർഭാഗം നിൽക്കുന്നുള്ള ബാക്കി അംഗങ്ങൾ എന്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഓടണം അപ്പോൾ ആ സമയത്ത് എറിഞ്ഞ ടീമിലെ ആ ആളുകൾ എന്ത് ചെയ്യും എന്ന് വെച്ചെങ്കിൽ ആ ബോളെടുത്ത് എതിർഭാഗത്തുള്ള കുട്ടികളെ ഓടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓടിച്ചതിന് ഓടിച്ചിട്ട് ഈ ബോളു കൊണ്ട് എതിർഭാഗത്തുള്ള കുട്ടികളുടെ മേലിലേക്ക് ഈ ബോള് എറിഞ്ഞിട്ട് അവര് അവരുടെ അവരുടെ ദേഹത്തേക്ക് ഇതു കൊള്ളുന്ന രീതിയിൽ എറിയും അങ്ങനെ എതിർഭാഗത്തുള്ള കുട്ടികളിലേക്ക് ഈ ബോള് കൊണ്ടാൽ കൊണ്ടന്നുവെച്ചാൽ ആ ആ ടീമിലെ ആ കുട്ടി പിന്നെ പിന്നീട് ഔട്ടായി പിന്നെ ബാക്കിയുള്ള എല്ലാം എല്ലാവരിലേക്ക് ഔ എന്ന രീതിയിലല്ല ബാക്കിയുള്ള എല്ലാ ടീമിലെയും ആൾക്കാരെ ഇങ്ങനെ ബോളുകൾ കൊണ്ട് എറിഞ്ഞു കൊണ്ടിരിക്കണം ആ സമയത്ത് ആ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള കുട്ടികൾ ഈ ചിരട്ടകൾ അടുക്കിവെക്കാൻ വേണ്ടി നോക്കണം അടുക്കി വെക്കാൻ വേണ്ടി നോക്കിയിട്ട് അടുക്കി വെക്കാൻ ലാസ്റ്റ് പറ്റുന്നതിനു മുൻപേ അടുക്കിവെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഓ എറിഞ്ഞ ആ എറിഞ്ഞു വീഴ്ത്തില് വീഴ്ത്തിയ ടീമിലെ കുട്ടികൾ ഓപ്പോസിറ്റ് ടീമിലെ കുട്ടികളെ എല്ലാം ഈ ബോളുകൊണ്ട് എറിഞ്ഞ് അവരെ ദേഹത്ത് കൊള്ളിക്കുന്നതിന് മുമ്പായി ഈ ഓപ്പോസിറ്റ് ടീമിലെ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ ഗോരി ഈ നിലത്ത് വീണു കിടക്കുന്ന ചിരട്ടകൾ എല്ലാം അടുക്കി പഴയതുപോലെതന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ പഴയതുപോലെ തന്നെ വെച്ചാൽ പിന്നീട് പിന്നീട് മറ്റേ ടീമിലെ ആ കുട്ടിക്ക് കുട്ടികൾക്ക് ഇവരെ എറിയാൻ വേണ്ടി അതായത് ദേഹത്ത് ബോളെറിയാൻ വേണ്ടി സാധിക്കുന്നതല്ല അതോടെ കളി നിൽക്കുന്നതാണ് അപ്പോൾ വേഗം പോയി നമ്മൾ ആ ചിരട്ടകളൊക്കെ അടുക്കി വയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് ഇതാണ് വേറെ ഒരു കളിയെന്ന് പറയുന്നത് പിന്നീട് നമ്മൾ കളിച്ചിട്ടുള്ള കളികൾ എന്താണെന്ന് വെച്ചാൽ കോട്ടകൾ വരച്ചിട്ട് ചിപ്ലിയെന്നാ പറയൽ ചിപ്ലി കളിക്കുന്നുവെന്നാണ് കാസർഗോഡ് ഭാഷയിൽ അത് പറയുന്നത് ചിപ്ലിയെന്നാ പറയൽ ഓരോരു പേര് അക്ക് കളിക്കുന്നു അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ അങ്ങനെയാ പറയുന്നത് ചിപ്ലിയെന്ന് വെച്ചാൽ ഒരു ഒരു നിലത്ത് നമ്മളൊരു കോട്ട വരച്ച് നാല് അതിനു നാല് റോയായി തിരിച്ച് കാ കാല് കൊണ്ട് ഒരു കാൽ മുകളിലേക്ക് പൊക്കി മറ്റേ കാൽ വെച്ച് ഇങ്ങനെ തുള്ളി തുള്ളി കളിച്ചിട്ട് ഒരു നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരു ചിപ്ലി എന്ന് പറയുന്ന ഒരു സാധനം അതായത് അതിലേക്ക് ഇടാൻ വേണ്ടി ഒരു ടൈൽസിന്റെ കഷണമോ കല്ലോ എന്താണെന്ന് വെച്ചാൽ ഒരു കളളിയിലേക്ക് ഇട്ട് ആ കള്ളി ചവുട്ടി നാല് നാല് കോളമോ നാല് റോയും മറികടന്നു പോയി പിന്നീട് തിരിച്ചുവന്ന് അതിനെ പുറത്തേക്ക് തട്ടി അങ്ങനെ കളിക്കുന്ന രീതിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കല്ല് കൈകൊണ്ട് ഇങ്ങനെ കാലുകൊണ്ട് പൊക്കി കക്കി നടന്നിട്ട് അത് കളിക്കാറുള്ളത് അപ്പോൾ അത് കളിക്കുമ്പോൾ അഥവാ നമ്മൾ നമ്മൾ വരച്ച വരയിൽ ചവിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് അങ്ങനെ ചവിട്ടുമ്പോൾ അത് ഔട്ടായി തോറ്റുവെന്നുള്ള രീതിയിലാ നമ്മൾ കൂട്ടാറുള്ളത് അതാണ് ഒരു കളി ഇതൊക്കെ നമ്മൾ ഈ സ്കൂൾ കാലഘട്ടങ്ങളിലും ചെറുതൊക്കെ ആകുമ്പോൾ കളിക്കുന്ന കളികളാണ് പിന്നീടുള്ള കളി എന്താണെന്ന് വെച്ചാൽ പിൻ പിന്നീടുള്ള കളി കല്ലുകളുപയോഗിച്ച് ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞു കളിക്കുന്ന കളികളൊക്കെയാണ് പിന്നീടുള്ള കളി അതൊക്കെ നല്ല രസമാണ് കളിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ചെറുതാകുമ്പോൾ കാർഡ്സ് ഉപയോഗിച്ച് കളിക്കാറുണ്ട് കാർഡ്സ് ഉപയോഗിച്ച് ചില സിനിമാ നടന്മാരുടെയും സ്പോർട്സ് താരങ്ങളുടെയൊക്കെ കാർഡുകളുപയോഗിച്ച് അങ്ങനെ കളിക്കാറുണ്ട് പിന്നെ എന്തു കളിയാ പിന്നെ അതേപോലെത്തന്നെ ഈ കല്ലുകളുപയോഗിച്ച് അതേപോലെത്തന്നെ ഈ ചിപ്ലിയെന്ന് പറയുന്ന പലതരത്തിൽ നമ്മൾ കോട്ടകൾ വരച്ച് കളിക്കാറുണ്ട് ചിപ്ലി എന്ന് പറയുന്നത് പിന്നെ ഒരു കളി എന്താണെന്ന് വെച്ചാൽ കൊക്കോയെന്ന് പറയും കൊക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കളിയുണ്ട് അത് കളിക്കാറുണ്ട് ചെറുതാവുമ്പോൾ അതുപോലെ നമ്മൾ വേറൊരു കളി കൂടി കളിക്കാറുണ്ട് അണ്ടർ ഓവർ എന്ന് പറഞ്ഞിട്ട് ഒരു കളി അണ്ടർ ഓവറെന്ന് വെച്ചാൽ ഒരു ഒരു വര വരക്കും എന്നിട്ട് അവിടുന്ന് ഒരു സ്ക്വയർ വരച്ചിട്ട് അതിനുള്ളിൽ ഒരാൾ നിന്ന് നമ്മൾ ബാക്കിയുള്ളവർ പുറത്ത് നിൽക്കും അപ്പോൾ അതിനകത്തുള്ള കുട്ടി അണ്ടറെന്നു പറഞ്ഞിട്ട് ഒരു കല്ലെടുത്ത് എറിയും അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ബാക്കിയുള്ളവരെല്ലാം അവിടെ ഈ കല്ല് പിടിക്കാൻ വേണ്ടി നിൽക്കുന്നവരെന്താക്കമെന്ന് വെച്ചാൽ ഓവറെന്ന് പറയണം അപ്പോൾ ഈ കല്ല് പിടിക്കാൻ പറ്റാതെ ആയാൽ ആവുമ്പോൾ നമ്മൾ പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ എറിയുന്ന കല്ല് പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം ചിലപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് അത് പിടിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത് എവിടെയെങ്കിലും പോയി വീഴും അപ്പോൾ അവിടുത്തേക്ക് ആറ് വരെ ആറ് സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോഴേക്കും ആ നമ്മൾ എറിഞ്ഞ കല്ലില്ലേ ആ കല്ലിന്റെ അടുത്തേക്ക് ആ കല്ലിനെ നമ്മൾ തൊടണം ആറാമത്തെ സ്റ്റെപ്പിൽ ആ കല്ല് നമ്മൾ കാലുകൊണ്ട് ടച്ച് ചെയ്യണം അപ്പം നമ്മൾ ജയിച്ചു ഇനി അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ അതേപോലെ ആറാമത്തെ പ്രാവശ്യം നമ്മൾ ഇത് തട്ടുമ്പോൾ തിരിച്ചു നേരെ ആ കോട്ടയിലേക്ക് അതായത് ആ സ്ക്വയറിന്റെ ഉള്ളിലേക്ക് ഈ കല്ല് പോയി വീഴണം എന്നാൽ ആ കുട്ടിക്ക് ഒരു സ്കോർ ആവും അതുപോലെ ബാക്കിയെല്ലാവരും ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ പണ്ട് നമ്മൾ കളിച്ചിരുന്ന ചില കളികളാണ് പിന്നീട് വേറൊരു കളി ഉള്ളതെന്ന് വെച്ചാൽ കുളം കരയെന്ന് പറഞ്ഞിട്ട് കുളം കരയെന്ന് പറഞ്ഞെങ്കിൽ വൃത്താകൃതിയിലൊരു വട്ടം വരച്ച് നിലത്ത് ഒരു വട്ടം വരച്ച് പുറത്തൊരു കുട്ടി നിൽക്കുന്നുണ്ടാവും ബാക്കി എല്ലാ കുട്ടികളും ആ എല്ലാ കുട്ടികളും പുറത്തു നിൽക്കുന്നുണ്ടാവും എന്നിട്ട് ഒരു കുട്ടി എന്തുചെയ്യുന്നു വെച്ചെങ്കിൽ കുളമെന്ന് പറഞ്ഞ് കുളമെന്ന് പറഞ്ഞ ഇപ്പം ഒരു കുട്ടി കുളം കരയെന്ന് ഏതെങ്കിലും ഒരു കുട്ടി പറഞ്ഞു കൊണ്ടേയിരിക്കണം അപ്പം അതിനനുസരിച്ച് ബാക്കിയുള്ള കുട്ടികൾ കുളമാണെങ്കിൽ വൃത്തത്തിനുള്ളിലേക്കും കരയാണെങ്കിൽ വൃത്തത്തിന് പുറത്തേക്കും തുള്ളി കൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് മാറ്റി മാറ്റി പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ തെറ്റായി കുളമെന്ന് പറഞ്ഞിട്ട് കരയിൽ തന്നെ നിൽക്കുന്നവരുണ്ടാകും അവര് ഔട്ട് ആയിപ്പോകും പിന്നെ പിന്നീടുള്ള ഒരു കളിയെന്ന് പറഞ്ഞെങ്കിൽ നാരങ്ങാ പാല് ചൂട്ടക്ക് രണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഒരു കളി കളിക്കാറുണ്ട് അത് രണ്ട് കുട്ടികളും ഓപ്പോസിറ്റ് നിന്ന് രണ്ട് കൈയ്യും പൊക്കിപ്പിടിച്ച് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കൈപിടിച്ച് ഇങ്ങനെ നിക്കും അപ്പോൾ അതിനിടയിൽ കൂടി ഒരു കുട്ടി പാസ് ചെയ്തു പോകും നാരങ്ങാ നാരങ്ങാ പാല് ചൂട്ടക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന കള്ളനെ പിടിച്ചേന്ന് പറഞ്ഞു പിടിച്ചാല് ആ ഉള്ളിൽക്കൂടി ഓടുന്ന കുട്ടീനെ നമ്മൾ പിടിച്ചാൽ ആ കുട്ടി തോറ്റു പിന്നെ അത് ഓപോസിറ്റ് ബാക്കി രണ്ട് പേര് പിടിച്ചിട്ട് ആ തോറ്റ കുട്ടിയും വേറെ ഏതെങ്കിലും കൂട്ടിയും പിടിച്ച് അത് ചെയ്യാം ബാക്കി പിന്നീട് ബാക്കിയുള്ളൊരു കുട്ടി ഇതേപോലെ ചെയ്യണം അങ്ങനെയാണ് ഈ കളി കളിക്കാറുള്ളത്